ഞാന് യൂസ് ചെയ്യുന്ന പ്രോഡക്ട് എന്റെ പ്രോഡക്ട് എന്ന് പറയുന്നത് ഫോണാണ് ഇപ്പം ഫോൺ എന്റെ ഫോണെന്ന് പറയുന്നത് വൺ പ്ലസ് ആണ് വൺ പ്ലസ്സിനെകുറിച്ച് ഞാന് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അടിപൊളി ഫോൺ കാര്യങ്ങളൊക്കെ ആണ് നല്ല ഫാസ്റ്റ്റ്റര് ചാര്ജിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ സൗണ്ട് സിസ്റ്റങ്ങൾ കാര്യങ്ങളാണെങ്കിലും അത്യാവശ്യം നല്ല സോങ്ങ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് അത്യവശ്യം നല്ല ക്ലിയർ കാര്യങ്ങളൊക്കെയുള്ള ഒരു സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് അതുപോലെ ഡിസ്പ്ലേ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ വരുന്ന ഡിസ്പ്ലേ കാര്യങ്ങളാണ് അതുപോലെ റേഞ്ചിന്റെ ഇതൊക്കെയാണെങ്കിലും ഫൈവ് ജി കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടും പിന്നെ സൗണ്ട് ക്ലോ ക്ലാരിറ്റി കാര്യങ്ങൾ കിട്ടുന്നതും അതു പോലെ ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് അടിപൊളി ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ ഫോണിന്റെ ഓരോ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് ഫോണ് ഹാങ് ആവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പം ചാര്ജ്ജിംഗ് തന്നെയാണെന്നുണ്ടെങ്കിൽ ചെറിയ സമയം കൊണ്ട് ഫുള് ചാര്ജ്ജ് കാര്യങ്ങൾ ആകുന്നുണ്ട് അതുപോലെ ഇന്റേണല് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ അത്യവശ്യമുള്ളതുകൊണ്ട് തന്നെ അവശ്യത്തിലധികം കാര്യങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഫോണിൻ്റെ ഇപ്പം ക്യാമറ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാന് പറ്റുന്നുണ്ട് അതുപോലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാനാണെങ്കിലും ഒക്കെ നല്ലെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഫോർ കെയിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ റെക്കോര്ഡ് ചെയ്യുവാനും ക്കെ പറ്റുന്നുണ്ട് പിന്നെ ഫോണിന്റെ എന്ന് പറയുമ്പം അതിന്റെ ബില്ഡ് കോളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണെ തന്നെ അടിപൊളി കോളിറ്റി കാര്യങ്ങളൊക്കെ വരുന്ന ഫോൺ കാര്യങ്ങളാണ് അതുപോലെ പ്രൊഡക്റ്റിൻ്റെ ഒരു മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടി ഒരു എല്ലാകാര്യത്തിലും പറ്റിയൊരു ഫോൺ കാര്യങ്ങളാണ് ഗെയിമിംങിനാണെങ്കിലും ക്യാമറയാണെങ്കിലും ഇപ്പം മൂവീസ് കാര്യങ്ങളൊക്കെ കാണുന്നതിനാണെങ്കിലും ഒക്കെ ഏതെങ്കിലും വിഡീയോസ് റെക്കോര്ഡ് ചെയ്യാനാണെങ്കിലും ഇപ്പം ഫോട്ടോഷൂട്ടിലെ കാര്യങ്ങള്ക്ക് ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും പറ്റിയൊരു നല്ല ഫോണാണ്